ജന്മനാടിനെ അല്ലങ്കിൽ നഗരം ഇഷ്ട്ടപ്പെടാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൃഷി രീതിലും കാർഷിക രംഗത്തും മുന്നോട്ട് നിക്കുന്നു പിന്നെ ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ല പ്രകൃതി രമണീയമായൊരു സ്ഥലമാണ് അപ്പോൾ കുറേ കുന്നുകളും പുഴകളും അങ്ങനത്തെ പച്ചപ്പും നിറഞ്ഞ എന്താ പറയുക നെൽപ്പാടങ്ങളും കാണാൻ ഒരുപാട് ഇഷ്ടമുള്ള അല്ലങ്കിൽ കാണാൻ ഒരുപാടുള്ളൊരു സ്ഥലമാണ് എൻ്റെ നാട് കുറേ വെള്ളച്ചാട്ടങ്ങളും പേര് കേട്ട കുറേ വെള്ളച്ചാട്ടങ്ങളും പിന്നെ ഡാമുകള് ഇഷ്ട്ടം പോലെ ഡാമുകളുണ്ട് പുഴകള് നെൽപ്പാടങ്ങള് അങ്ങനത്തെ എന്താ പറയുക ശരിക്കും ഒരു പ്രകൃതി രമണീയമായ സ്ഥലം തന്നെയാണ് ഇപ്പോൾ അത് പിന്നവിടെ മലിനീകരണം അല്ലങ്കിൽ കമ്പനികള് കുറവായത് കാരണം കൊണ്ട് പൊല്യൂഷൻ്റെ അങ്ങനത്തെ ബുദ്ധിമുട്ടുകള് കുറവാണ് അപ്പം ശുദ്ധമായ വായു അതക്കെയാണ് മെയ്നായിട്ടും ഇവിടുത്തെ പ്രത്യേകത പിന്നെ നമുക്കിവിടെ കാർഷിക പരമായിട്ട് എന്ത് പരിപാടി വേണെൽ ഇപ്പോൾ കൃഷിയായിട്ടുള്ള ഫാമുകള് തുടങ്ങാനോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വളരെ എളുപ്പമാണ് അപ്പോൾ അതൊക്കെ വിജയിക്കുന്നൊരു സ്ഥലമാണ് അപ്പം അതിലൊക്കെ എനിക്ക് കൂടുതൽ ഇന്ട്രെസ്റ്റുള്ള കാരണം കൊണ്ടും എനിക്ക് എൻ്റെ നാട് ഭയങ്കര ഇഷ്ടമാണ്